ഞങ്ങളുടെ ഗ്രാമത്തില് ആരോഗ്യ സേവനങ്ങള് ഞങ്ങള്ക്ക് കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഹെൽത്ത് സെന്ററുകളിലൊക്ക നിന്നാണ് എന്ത് അത്യാവശ്യം വന്നാലും ഞങ്ങളവിടെ കാണിക്കും പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തില് ഹെൽത്ത് സെന്ററുകളില് അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ അവിടെ ചെയ്യാറുണ്ട് അതിനുള്ള സൗകര്യങ്ങളക്കെ അവിടെയുണ്ട് കെട്ടോ പിന്നെ ചെറിയ ക്ഷീണമൊക്കെ വരുവാണെങ്കില് നിരീക്ഷണത്തില് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതും ഉണ്ട് പിന്നെ ഗ്രാമത്തിനെ അപേക്ഷിച്ച് പട്ടണത്തില് സൗകര്യം കൂടുതലാണ് അത്യാധുനിക സൗകര്യത്തോടു കൂടിയാണല്ലോ പട്ടണത്തിലെ ആശുപത്രികളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ സ്കാനിങ്ങ് എക്സ് റേ സി ടി സ്കാന് എം ആർ ഐ സ്കാന് ഇതൊക്കെ ഞങ്ങള്ക്ക് എടുക്കണമെങ്കില് ഞങ്ങള് ഗ്രാമത്തിലുള്ളവർക്ക് സാധാരണ പട്ടണത്തിലേക്ക് തന്നെയാണ് ഞങ്ങള് പോകാറുള്ളത് പിന്നെ ഞങ്ങള് എന്തങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നാല് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഹെൽത്ത് സെന്ററിൽ തന്നെയാണ് കാണിക്കാറുള്ളത് അതുകൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങള് പിന്നെ വേറെ ഹോസ്പിറ്റല് പട്ടണത്തിലില്ലെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാറുള്ളൂ അല്ലാതെ ചെറിയ അസുഖം വരുമ്പോഴത്തേന് അങ്ങോട്ടെക്കൊന്നും ഞങ്ങള് പോകാറില്ല കാരണം നമ്മളെ നാട്ടില് ചെറിയ പിന്നെ അസുഖങ്ങള്ക്കൊക്കെല്ല മരുന്നും സൗകര്യവുമൊക്കെ ഞങ്ങളെ നാട്ടില്ത്തന്നെയുണ്ടല്ലോ അപ്പോള് എന്തെങ്കിലും അതുകൊണ്ട് മാറിയിട്ടില്ലെങ്കില് കൂടുതലാണെങ്കില് മാത്രമേ ഞങ്ങള് പട്ടണത്തിലേക്ക് പോകാറുള്ളൂ